നമസ്ക്കാരം

ഉണ്ട് ഉണ്ട് സാറെ നമുക്ക് പുതിയ എൻ ആർ ഐസിനുള്ള പുതിയൊരു പ്ലാന് വന്നിട്ടുണ്ട് സാറ് സ്ഥലം എവിടെയാണ് സാർ പാലക്കാട് എവിടെയാണ് സാറേ നമുക്ക് ലൈഫ് ഇൻഷുറൻസും കാര്യങ്ങളും ലോങ്ങ് ടേമാണോ ഉദ്ദേശിക്കണത് അതോ നമുക്ക് പേയ്മെൻ്റ് ഓരോ ഒരോ സ്കീം ആയിട്ടാണ് സാറെ നമ്മൾക്കതിൽ മന്ത്ലി സ്കീം വരുന്നുണ്ട് പേയ്മെൻ്റ് അതുപോലേ ഇയർലി സ്കീം വരുന്നുണ്ട് ക്വാർട്ടർലി സ്കീം വരുന്നുണ്ട് സാറിന് ഏതു സ്കീമാണോ പ്രിഫെർ ചെയ്യാൻ താല്പര്യം സാറ് ഇപ്പം മന്ത്ലിയാണോ അതോ ക്വാർട്ടർലി ആണോ

അതെയതെ സാറെ നമുക്ക് നമുക്ക് എൻ ആർ ഐസിനൊക്കെ നമ്മളെടുക്കുന്ന ഒരു അമ്പതു ലക്ഷത്തിൻ്റെ ഒരു സ്കീം വരുന്നുണ്ട് അത് നമ്മൾ പതിനഞ്ചു വർഷത്തേക്കാണ് അതിൻ്റെ ടെന്നൂർ വരുന്നത് നമ്മൾ അതിൽ നമുക്ക് പേയ്മെൻ്റ് നമുക്ക് സാർ ചൂസ് ചെയ്യുന്നതുപോലെ മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി ചൂസ് ചെയ്യാം ക്വാർട്ടർലി വേണമെങ്കിൽ ക്വാർട്ടർലി ചൂസ് ചെയ്യാം പേയ്മെൻ്റിൽ വലിയ എമൗണ്ട് വ്യത്യാസം വരുന്നില്ല സാറ് ഈ പറഞ്ഞതുപോലെ അക്കൗണ്ട് സാറ് അക്കൗണ്ട് എൻ ആർ ഐ അക്കൗണ്ടാണോ സാറ് അതോ നോർമൽ നാട്ടിലത്തെ എൻ ആർ ഒ ആണോ എൻ ആർ ഐയാണോ സാറിൻ്റെ അക്കൗണ്ട് എൻ ആർ ഐ ഓക്കേ സാറെ നമ്മൾ അപ്പോൾ എൻ ആർ ഐ അക്കൗണ്ട്സിൽ ഉള്ളവർക്ക് നമ്മൾ ക്വാർട്ടർലി സ്കീമാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ നമ്മുടെ മൂന്ന് മാസത്തെ പ്രീമിയം എല്ലാ ക്വാർട്ടർലി എൻ്റിലും സാറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റാവുന്ന പോലെയാണ് അതുകൊണ്ടിതിന് ബെനിഫിറ്റ് വരുന്നത് അമ്പതു ലക്ഷത്തിൻ്റെ പ്രീമിയമാണ് അത് ഫുൾ ഫാമിലി ഇപ്പോൾ ലൈസെൻസെസും ആവുന്നുണ്ട് സാറെ ഫുൾ ഫാമിലിക്കുള്ള ഇൻഷുറൻസും ഇതിൽ കാവേർഡാവുന്നുണ്ട് പിന്നെ നമുക്ക് മന്ത്ലി ഇതിൻ്റെ മന്ത്ലി പ്രീമിയമായിട്ട് വരുന്നത് ട്വൻ്റി ഫൈവ് തൗസൻ്റാണ് ട്വൻ്റി ഫൈവ് തൗസൻ്റാണ് കാരണം നമുക്കത് പതിനഞ്ചു വർഷത്തേക്കാണ് നമ്മളത് സാറെ ട്വൻ്റി ഫൈവ് തൗസൻ്റ് വച്ചിട്ട് നമുക്കൊരു അഞ്ചു വർഷം അടച്ചാൽ മതി അഞ്ചു വർഷം അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അഞ്ചുവർഷത്തേക്ക് ഫസ്റ്റിലേത്തെ അഞ്ചുവർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കൊരു മണിബാക്ക് വരുന്നുണ്ട് നമ്മൾ ഈ അടച്ച എമൗണ്ടിൻ്റെ സെർടൈൻ പേഴ്സൻ്റേജ് സാർക്ക് മണിബാക്ക് വരും അതുകഴിഞ്ഞു പിന്നെയൊരു അഞ്ച് വർഷം ഈ ട്വൻ്റി ഫൈവിൻ്റെ പകുതിയടച്ചാൽ മതിയാകും സാർ അതു കഴിഞ്ഞ് ബാക്കിയുള്ള അഞ്ചുവർഷത്തേക്ക് സാർക്ക് ഈ പോളിസി കവറേജ് ഉണ്ടാകും പതിനഞ്ചാമത്തെ വർഷം ആ മച്ചുവേർഡ് ആവുന്ന സമയത്ത് സാർക്ക് ഫുൾ എമൗണ്ടും റിട്ടേൺ കിട്ടും അങ്ങനെയാണ് നമുക്ക് പോളിസി വരുന്നത് ഉണ്ട് സാറെ നമുക്ക് പിന്നെ സെവെൻ്റി ഫൈവ് ലാഖ് വൺ സി ആർ വരുന്നൊരു പ്ലാനതിനകത്ത് ഉണ്ട് അതിൽ നമുക്ക് അത് നമുക്ക് ഇതേപോലെ സാറ് ടെൻന്നൂർ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും സാറ് ഷോർട്ട് ടേമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എമൗണ്ട് ഇ എം ഐയോടു കൂടുതലായിരിക്കും ലോങ്ങ് ടേം ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കമ്മിയായിരിക്കും സർ ഇപ്പോൾ സാറൊരു ടെൻ ഇയേർസൊക്കെയാണ് സാറെ നമുക്ക് അതിപ്പോൾ സാറ് ടോട്ടൽ എമൗണ്ട് ഏത് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു സെവെൻ്റി ഫൈവ് പേഴ്സൻ്റേജ് മാത്രമേ നമുക്ക് സാർ ഇ എം ഐയായിട്ടു അടച്ചാൽ മതിയാകും ബാക്കി നമുക്ക് ഫൈവ് ഇയർ കഴിയുന്ന വരെ അതിൻ്റെ ഒരു മണിബാക്കും വരും അത് കഴിഞ്ഞിട്ടുള്ള കവറേജും വരും സാർ അതിൽ സാർ സാറ് ഫിഫ്റ്റി ലാഖ്സിന് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഫിഫ്റ്റി ലാഖ്സ് ഫുള്ളായിട്ടു അടയ്ക്കണ്ട തേർട്ടി ലാഖ്സ് വരെ അടച്ചാൽ മതി ബാക്കി ട്വൻ്റി ലാഖ്സ് നമുക്കിതിൻ്റെ ഇൻ്ററെസ്റ്റ് കൂടി അഡിഷനലായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും സെവൻ്റി ഫൈവ് തൗസൻ്റ് വച്ചിട്ടു ആക്കുമ്പോൾ സാർക്കൊരു ട്വൻ്റി ഇയേർസ് അടക്കേണ്ടിവരും സാർ സാർ ക്വാർട്ടർലി സ്കീം പ്രിഫെർ ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി ഇയേർസിൽ സാർക്ക് ടെൻ ഇയർ അടച്ചാൽ മതി ടെൻ ഇയർ കഴിഞ്ഞു ബാക്കിയുള്ള ഫൈവ് ഇയറിന് ഈ എമൗണ്ടിൻ്റെ പകുതി വരും അതു കഴിഞ്ഞിട്ടുള്ള ഫൈവ് ഇയേർസ് സാർക്ക് എങ്ങനെയാണു സാർ അതിൽ പ്രീമിയം വൺടൈം വൺടൈം ആയിട്ടു അടക്കാനാണ് അതുതന്നെ സാറെ നമ്മൾക്കൊരു വർഷത്തിൽ ക്വാർട്ടർളിയാകുമ്പോൾ ഒരു വർഷത്തിൽ സാർ നാലെണ്ണം വച്ച് അടച്ചാൽ മതിയാകും ഒരു വർഷത്തിൽ സാറ്

അത് ആ നോക്കാം അങ്ങനെയുള്ള സ്കീം വരുന്നില്ല സാർ നമുക്കിത് ക്വർട്ടേർലി പേയ്മെൻ്റ് വരുന്നതാണ് കാരണം എന്താണെന്നാ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് എടുക്കുന്ന സമയത്തു ഈ സെവൻ്റി ഫൈവിൽ സെവൻ്റി ഫൈവ് തൗസൻ്റ് വരുമ്പോൾ സാർ ക്വാർട്ടേർലി സെവൻ്റി ഫൈവ് തൗസൻ്റ് വച്ച് അടയ്ക്കേണ്ടി വരും അല്ല മന്ത്ലി സെവൻ്റി ഫൈവ് തൗസൻ്റ് വച്ച് അടക്കേണ്ടി വരും അത് സാർക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് സാറിന് അതിന് മേലെ വൺ ഇയർ പേയ്മെൻ്റ് വരുന്നുണ്ട് സാറ് ടെൻ ഈ വൺ സി ആറിൻ്റെ എടുക്കുമ്പോൾ പത്തുവർഷം പോരെ സാറേ അത് അത് പറ്റും സാർ നമുക്ക് എഫ് ഡി നമുക്ക് നല്ല ഇൻ്ററെസ്റ്റ് റേറ്റ് ഉണ്ട് അതിൽ എഫ് ഡി ചെയ്തിട്ട് സാറുടെ ലൈസെൻസ് അക്കൗണ്ടും ഇതുമായിട്ട് ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ സാറെ ഇത് മന്ത്ലി കട്ടിങ്ങ് നമ്മളെ ഈ എഫ് ഡിയുടെ ഇൻ്ററെസ്റ്റ് സാറിൻ്റെ അക്കൗണ്ടിൽ വരും അതിൽ നിന്ന് സാറിൻ്റെ ഈ നമ്മുടെ ഈ ഇ എം ഐയുടെ കട്ടിങ്ങ് അതിൽ നിന്നു പൊയ്ക്കോളും സാറെ ഈ പറഞ്ഞ ഒരു ഫിഫ്റ്റി ലാഖ്സ് നമ്മളെ ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതിൽ നിന്ന് തന്നെ കട്ടിങ്ങ് പോകുന്നതുപോലേ ചെയ്യാൻ പറ്റും അത് സർ പക്ഷെ നമുക്ക് അതിൽ നമുക്ക് അതിൽ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എഫ് ഡി ആയിട്ടു എടുക്കാൻ പറ്റും നമ്മുടെ എൻ ആർ ഐ അക്കൗണ്ടിലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സാറെ നമ്മുടെയൊരു എൻ ആർ ഐ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സാറെ ഈ ഫിഫ്റ്റി ലാഖ് നമ്മുടെ എൻ ആർ ഐ അക്കൗണ്ടിൽ എഫ് ഡിയായിട്ട് ഇട്ടാൽ മതി അപ്പോൾ നമുക്കതിന് അതിന് ഇന്ന് നമ്മൾ സാറെ ഫോമ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ നെക്സ്റ്റ് ടൈം സാറെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ ഫോം എടുത്തിട്ട് വരാം എന്നിട്ട് നമ്മൾക്കത് ബാക്കിയെല്ലാം സാർ ഐ ഡി പ്രൂഫും കാര്യങ്ങളും തന്നാൽ മതി നമ്മൾ ആ ഫോം ഫിൽ ചെയ്ത് നമ്മൾ തന്നെ ചെയ്തു തന്നോളാം സാർ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിൽ സാർക്ക് ചെക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു തരും എങ്ങനെയാണ് സാർ ഓക്കേ ഓക്കേ സാർ ഞാൻ സർക്കിന്നു വൈകുന്നേരം നമ്മുടെ ഒരു ഓൺലൈൻ ലിങ്കുണ്ട് അത് ഞാൻ സാർക്ക് സാറുടെ പേഴ്സണൽ നമ്പർ തരികയാണെങ്കിൽ അതിലേയ്ക്ക് വാട്സ്ആപ്പ് ചെയ്തുതരാം സാറിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സാറിൻ്റെ ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ അതിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽമതി നമ്മൾ അവിടെ ചെയ്യാനുള്ള സിസ്റ്റത്തിൽ ചെയ്യാനുള്ള പ്രോസിജ്യറ് കഴിഞ്ഞിട്ട് നാളെ സാറെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ ആ ഫോമ് കൊണ്ടു വരാം ജസ്റ്റ് സൈൻ ചെയ്തു തന്നാൽ ടു ഡേയ്സിൽതന്നെ നമ്മുക്ക് ആക്ടിവേഷൻ ആക്കാം സർ ഓക്കേ സർ ഓക്കേ താങ്ക് യു സർ